നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴയിലാണെങ്കിൽ കൂടുതൽ വില മെച്ചമുള്ള സാധനങ്ങൾ കിട്ടുവാനും വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴയെന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴയിൽ മെയിനായിട്ടും മെയ്നായിട്ടും അവിടെ ഉള്ളതെന്ന് പറയുന്നത് മത്സ്യം മത്സ്യം പിടിക്കുക പിന്നെ മീൻപിടുത്തം പിന്നെ കരകൗശലവസ്തുക്കൾ കയറ് വള്ളം എന്നിവ കൂടുതൽ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴയെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മെയ്നായിട്ട് നടന്ന് വരുന്നത് വള്ളം കളിയാണ് വള്ളംകളി കാണാനാണെല്ലാ വിനോദ സഞ്ചാരികൾ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ നാട്ടുകാരേക്കാളും കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് വിനോദസഞ്ചാരികളാണ് അവിടെത്തന്നെ വിനോദസഞ്ചാരികൾക്ക് ബോറടിക്കാതിരിക്കാനുള്ള റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ആലപ്പുഴയിലുണ്ട് അതുമാത്രമല്ല പ്രസിദ്ധ മാർക്കറ്റ് കൂടുതൽ മാർക്കറ്റുകൾ പ്രതീവര ബസാറുകൾ പച്ചക്കറികൾ ധാന്യവിപണികൾ ഷോപ്പിങ്ങ് സെൻറ്ററുകൾ എന്നിവയും അവിടെയുണ്ട് അവിടെ കിട്ടുന്ന സാധനങ്ങൾക്കെല്ലാം ഗുണനിലവാരം കൂടുതലും വിലക്കുറവുമാണ് അവിടുന്ന് ലഭിക്കുന്നത് അതുതന്നെ എല്ലാം ഹോ എന്നാ കൂടുതലും അവിടെ വരുന്നത് പിന്നെ കരകൗശല വസ്തുക്കൾ കൂടുതൽ വില്പനക്കും അവിടെ കിട്ടാറുണ്ട് മാസത്തിൽ ഇന്നയിന്ന ഒരേ വർഷത്തിൽ ഇന്ന മാസങ്ങളിലാണ് അവിടെ കൂടുതലുമായിട്ട് വരുന്ന വിനോദസഞ്ചാരികൾ കൂടുന്ന സമയമെന്ന് പറയുന്നത് വള്ളം കളിയുടെ സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആലപ്പുഴ വള്ളംകളി നടക്കുന്നത് അവിടെ പിന്നെ കൂടുതൽ കാണികൾ ഇപ്പം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഗതാഗതവും എല്ലാം സർക്കാരുകളാണ് സർക്കാരാണെങ്കിലും ഇപ്പം ആലപ്പുഴയ്ക്ക് വേണ്ടീട്ട് ഒത്തിരി മെച്ചപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കിപ്പം ഹൈവേയിലൊക്കെ എൻ എച്ച് റോഡ് അങ്ങനെ ഹൈവേ റോഡ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആലപ്പുഴയിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമീപ ആലപ്പുഴയിലെ സമീപപ്രദേശങ്ങളിലാണെങ്കിലും കൂടുതലും പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പച്ചക്കറി കൂടുതലും കൃഷി ചെയ്യുന്ന സ്ഥലം പിന്നെ ആലപ്പുഴയിലാണ് കൂടുതലും പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് ധാന്യങ്ങളാണെങ്കിലും നമ്മൾ നെല്ല് നെല്ല് കണ്ടത്തിൽ കൊയ്യുന്ന നെല്ലെടുക്കുക കൃഷി ചെയ്ത് കൊയ്ത് അത് നെല്ലാക്കുക നെല്ലാക്കി അത് നമ്മൾ മില്ലിലേക്ക് കൊടുത്ത് എന്താ പറയുക അതും മില്ലിലേക്ക് കൊടുത്ത് എന്നാ അരിയാക്കുക അത് അന്യദേശത്തേക്ക് നമ്മൾക്ക് കയറ്റുമതി ചെയ്യുക ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മുടെ വീടുകളിൽ നമ്മളെടുക്കാറുകയുളളൂ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഷോപ്പിങ്ങ് സെൻറ്ററുകളാണ് ആലപ്പുഴയിൽ കൂടുതലും കണ്ടുവരുന്നത് ഷോപ്പിങ്ങ് സെൻറ്ററുകളുണ്ട് അത് തന്നെ കൂടുതൽ കൂടുതൽ വെറൈറ്റി വെറൈറ്റി രീതിയിലുള്ള ഡ്രസ്സുകളും പിന്നെ സാരി ഡ്രസ്സുകളും അത് ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് വിനോദസഞ്ചാരികളാകട്ടെ നമ്മുടെ നാട്ടുകാരാകട്ടെ ആർക്കും എങ്ങനേയും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പിന്നെ ഷോപ്പിങ്ങ് സെൻറ്ററുകളിൽ ഡ്രസ്സുകൾ അവിടെ വിൽക്കപ്പെടുന്നത് അത് തന്നെ അല്ല നല്ല ഗുണനിലവാരവുമുള്ളതാണ് ഗുണനിലവാരവുമുണ്ട് വിലയും തുച്ഛമാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും നമുക്ക് സാധാരണക്കാർക്കാണെങ്കിലും ഡ്രസ്സെടുക്കാവുന്ന രീതിയിലാണ് അവിടെ ആലപ്പുഴ ആലപ്പുഴയിൽ ഷോപ്പിങ്ങ് മാർക്കറ്റ് ഷോപ്പിങ്ങ് നടത്താൻ സാധാരണക്കാർക്ക് കൂടുതലും ഷോപ്പിങ്ങ് നടത്താവുന്നത് നടത്താവുന്നതാണ് പിന്നെ വരുന്നത് കൂടുതലും മാർക്കറ്റുകൾ മാർക്കറ്റുകളും കൂടുതൽ കണ്ടുവരുന്നത് ആലപ്പുഴയിലാ ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്നിവ കൂടുതലും എനിക്ക് തോന്നണു ആലപ്പുഴയിലാണ് കൂടുതലും മാർക്കറ്റുകളും വരുന്നത് അതും ഒരു മാർക്കറ്റിൽ പല സാധനങ്ങൾ മച്ച്കാ പച്ചക്കറി ധാന്യങ്ങൾ മൽസ്യങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അത് ഓരോന്നോരോന്നായിട്ട് തരം തിരിച്ചിരിക്കുകയാ അതുകൂടാതെ ഡ്രസ്സുകൾ പിന്നെ കരകൗശലങ്ങൾ പിന്നെ കയറുകൾ പിന്നെ അങ്ങനെ നമ്മുടെ ഈ മൺചട്ടി അങ്ങനെ കൂടുതലും വിനോദ സഞ്ചാരികൾക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കരകൗശലം കയർ മൺചട്ടി പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളിപ്പം കൂടുതലും വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്നതും അങ്ങനെ വരുന്ന കാര്യങ്ങളുണ്ട് ആലപ്പുഴയിൽലെന്ന് പറയുന്നത് പിന്നെ കൂടുതലും ഹൗസ് ബോട്ടുകൾ ഹൗസ് ബോട്ടുകളെന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾക്കും നമ്മുടെ നാട്ടുകാർക്കും വെളീളിയിൽനിന്ന് വരുന്ന ആർക്കും ഉപയോഗിക്കാനും യാത്ര ചെയ്യാനും സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴയെന്ന് പറയുന്നത് ആലപ്പുഴയെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കുന്നത് മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്ന ഹൗസ് ബോട്ടുണ്ട് പിന്നെ വള്ളം കളിയുണ്ട് പിന്നെ ആലപ്പുഴ ബീച്ച് അവിടുത്തെ മാർക്കറ്റുകൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളാണ് ആലപ്പുഴയിൽ ഉള്ളത് പിന്നെ കുട്ടികൾക്കണേലും കൂടുതലിഷ്ടപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴയെന്ന് പറഞ്ഞ സ്ഥലം പിന്നെ കൂടുതൽ അവിടെ കാണുന്നതെന്നാ ആൾക്ക് അവിടെ ഗുണനിലവാരം എല്ലാ സാധനങ്ങൾക്കും നല്ല ഗുണനിലവാരവുമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം